എൻ്റെ മതം ഞാനൊരു ക്രിസ്ത്യാനിയാണ് അതിലുപരി ഞാനൊരു നല്ല മനുഷ്യനാണ് അങ്ങനെ പറയാം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ മതത്തെയല്ല നോക്കേണ്ടത് അതിലുപരി നമ്മുടെ മനുഷ്യത്വം എന്താണെന്നാണ് നാം നിശ്ചയിക്കപ്പെടേണ്ടതും നാം മറ്റുള്ളവർക്ക് കാണിച്ചുകൊടുക്കേണ്ടതും എന്നാലും ആദത്തിൻ്റേയും ഹവ്വയുടെയും കഥ അത് എന്താ പറയുക ക്രിസ്ത്യാനികളിൽ എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിരുന്നാലും മറ്റുള്ളവർക്ക് എന്താ പറയുക കുറച്ചൊക്കെയേ അറിയത്തുള്ളൂ ആദത്തെയും ഹവ്വയേയും കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ മാതാപിതാക്കൾ അതുപോലെത്തന്നെ തിന്നരുത് എന്ന് പറഞ്ഞ ഭക്ഷണം അവർ ഭക്ഷിച്ച് തൻ്റെ തെറ്റുകൾ അവർ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ആ തോട്ടത്തിൽനിന്ന് പുറത്താക്കപ്പെട്ടത് അതുപോലെ നാം നമ്മളോട് മാതാപിതാക്കളായാലും മീൻസ് നമ്മുടെ തെറ്റ് നമുക്കെന്താണെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ല പക്ഷേ എന്നാലും മറ്റുള്ളവർ അത് വേണ്ട എന്ന് തെറ്റാണ് എന്ന് പറഞ്ഞ് തരുമ്പോൾ നാം അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുവേണം അല്ലെങ്കിൽ ആ ഒരു മനസ്സ് നമുക്കുവേണം അതുപോലെ അതുപോലെയൊരു കഥയാണ് ആദത്തിൻ്റേയും ഹവ്വയുടെയും കഥ എന്നിരുന്നാലും അവർ ആ തെറ്റ് ചെയ്തെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലായി അതുപോലെ നാം ഏതെങ്കിലും തെറ്റ് ചെയ്താലും പിന്നീട് നമുക്കത് മനസ്സിലാകും എന്താണെന്നു ചോദിച്ചാൽ നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാവുമ്പോഴാണ് നാം ഒരു മനുഷ്യനായി മാറുന്നത്